ഞാൻ താമസിക്കുന്നത് ഒരു ഗ്രാമ നഗരത്തിലാണ് അപ്പോൾ ഇവിടെ ഒരു കട തുടങ്ങണെങ്കിൽ മറ്റേ സർക്കാരിൻ്റെ കുറേ ഒഡേഴ്സ് വേണം എന്നാലേ ഇവിടൊരു കടയോ എന്തെങ്കിലും തുടങ്ങാൻ പറ്റുള്ളൂ അതിനാവശ്യമായ സ്ഥലം വേണം അപ്പോൾ ഈ സർക്കാർ ഓഫീസുകളിൽ കയറി നിരങ്ങേണ്ടി വരും നമ്മളിങ്ങനെ ഓരോ ഇതിനും വേണ്ടി ഓരോ കടലാസിനും വേണ്ടി നമ്മൾ സർക്കാരിൻ്റെ ഓഫീസുകളിൾ നമ്മൾ കയറി ഇറങ്ങേണ്ടതായിട്ട് വരും പിന്നേ ഇതൊക്കെ വേഗത്തിൽ ചെയ്ത് കിട്ടുക്കുകയാണെങ്കിൽ നമ്മൾക്കിവിടെ എന്തെങ്കിലും ഒരു സംഭരണം ഈ ഗ്രാമപ്രദേശത്ത് തുടങ്ങാം പക്ഷേ ഈ ഇതിൻ്റെ താമസം കാരണം ആണ് ആരും അങ്ങനെ പിന്നെ സംഭരണളൊന്നും ഒന്നും ചെയ്യാത്തത്